ഇത് മലബാർ ഹോട്ടൽ അല്ലേ ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ഓഡർ ചെയ്തായിരുന്നേ അത് ഓണംതുരുത്ത് വീട്ടിലോട്ടാണ് ഓഡർ ചെയ്തത് അത്യാവശ്യമായിട്ട് എനിക്ക് വേറെ ഒരു സ്ഥലം വരെ ഏറ്റുമാനൂർ വരെ പോരേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് ആ സാധനം ഏറ്റുമാനൂരോട്ട് നിങ്ങൾക്കതൊന്ന് എത്തിക്കാൻ പറ്റുവോ അതെ ഇനി അനേ ശരിക്കുള്ള വഴി ഞാൻ പറഞ്ഞു തരാം അത് എന്താണ് ചെയ്യേണ്ടതെന്ന് അതനുസരിച്ചു ഒന്ന് ചെയ്ത് തരുവോ